കേരളത്തിലെ സാംസ്കാരിക കായിക പരിപാടികൾ അനേകം നട നടത്താറുണ്ട് വർഷംതോറും നട നടത്തുന്ന കുറേ പരിപാടികളുണ്ട് അതിൽ തന്നെ പേരുകേട്ട ഒന്നാണ് നെഹ്റു ട്രോഫി വള്ളംകളി അതായത് വർഷംതോറും ആലപ്പുഴയിൽ വെച്ച് നടക്കുന്ന വള്ളം കളിയിൽ പേരുകേട്ട പല വമ്പൻ ടീമുകളും ആ വള്ളം കളിയിൽ പങ്കെടുക്കാറുണ്ട് അത് ഉത്ഘാടനം ചെയ്യാൻ വേണ്ടിയിട്ട് കേന്ദ്രം കേന്ദ്രത്തിൽ തന്നെ മന്ത്രിമാർ പിന്നെ വിശിഷ്ട വ്യക്തികൾ അവിടെ വരുന്നുണ്ട് അതൊക്കെ നമ്മുടെ വിനോദ മൂല്യത്തിന് പേരുകേട്ട ഒരു സംസ്ഥാനമാണ് കേരളം കേരളത്തിലെ നെഹ്റു ട്രോഫി വള്ളം കളി തന്നെ അനേകം അനേകായിരം ആൾക്കാർ പല സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നും ആൾക്കാർ ഒഴുകിയെത്തുന്ന ഒരു കാണാൻ വേണ്ടി ഒഴുകിയെത്തുന്ന ഒരു പരിപാടിയാണ് അതുപോലെതന്നെ അവിടെയുള്ളത് തൃശ്ശൂരിലെ തൃശ്ശൂർ പൂരം അതും രണ്ടാമതായി പറയാം പറയപ്പെടുന്നൊരു വിനോദ മൂല്യത്തിന് പേരുകേട്ട ഒരു ഉത്സവമാണ് തൃശ്ശൂർപൂരം അതായത് ആനകളെക്കൊണ്ട് എഴുന്നള്ളിപ്പും വെടി വെടിക്കെട്ടും ശ്രദ്ധേയമാണ് പേരുകേട്ട വെടിക്കെട്ടും പിന്നെ തിടമ്പും തിടമ്പ് തിടമ്പ് കയറ്റലും അതൊക്കെ പേരുകേട്ടതാണ് ഒന്നാമത് നമുക്ക് പറയാനുള്ളത് ആനകളുടെ പൂരങ്ങളുടെ പൂരമായ തൃശ്ശൂർ പൂരമെന്നാണ് അതിനെ വിശേഷിപ്പി വിശേഷിപ്പിക്കപ്പെടുന്നത് ലക്ഷക്കണക്കിന് ആൾക്കാരാണ് ഇത് കാണാൻ വേണ്ടിയിട്ട് അവിടെ വരുന്നത് പല ജില്ലകളിൽ നിന്നും പല സംസ്ഥാനങ്ങളിൽ നിന്നും ഇത് കാണാൻ വേണ്ടി ആൾക്കാർ വരുന്നുണ്ട് അതുപോലെ നമുക്ക് പേരുകേട്ട ഉത്സവങ്ങൾ കായിക പരിപാടികൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നെഹ്റു ട്രോഫി വള്ളം കളി വള്ളം കളി എന്ന് പറഞ്ഞു അതു കൂടാണ്ട് നമ്മൾ ഉത്സവങ്ങളിൽ പെടുന്നതാണ് തൃശ്ശൂർ പൂരം അതുപോലെത്തന്നെ ഓണത്തിൻ്റെ ഓണത്തിൽ മാത്രം കാണപ്പെടുന്ന ഓണം അതായത് മലയാളി മലയാളികളുടെ ഒരു ഉത്സവമായാണ് ഓണത്തെ നമ്മൾ കണക്കാക്കപ്പെടുന്നത് ഓണത്തിൻ്റെ ആ ഒരു പത്ത് ദിവസം അത്തം പത്തിന് പൊന്നോണമെന്ന് അറിയപ്പെടുന്ന ആ ഓണത്തിൽ എല്ലാ ക്ലബ്ബ് എല്ലാ കൂട്ടായ്മകളും ഒന്നിച്ച് ചേർന്ന് അവർ വെവ്വേറെ നടത്തപ്പെടുന്ന പരിപാടികളുണ്ട് ഓണപ്പരിപാടികളുണ്ട് ഓണത്തല്ല് ഓണപ്പൂക്കളം മാവേലിയെ മാവേലിയെ വരവേൽക്കാൻ വേണ്ടി പലതരം പരിപാടികൾ അവർ നടത്താറുണ്ട് അതിൽ ജാതിയെന്നോ മതമെന്നോ ഒന്നും നോക്കാറില്ല എല്ലാവരും അതിൽ പങ്കുചേർന്ന് പരിപാടികൾ നടത്താറുണ്ട് അത് സ്കൂളുകളിലായാലും കോളേജ് കോളേജുക കോളേജിലും അതുപോലെ വ്യാപാരി വ്യവസായി അവർ കൂട്ടമായി സംഘടിപ്പി സംഘടിപ്പിക്കുന്നതും സർക്കാർ സർക്കാർ ഓഫീസുകളിൽ പോലും പൂക്കളും മറ്റു ഓണ സദ്യകളും ആയി ഇതിനു ഓണപ്പരിപാടികൾ നടത്താറുണ്ട് അതൊരു വൻ ഉത്സവമായിട്ടാണ് ഓണ കേരളത്തിലേത് കണ കണക്കാക്കപ്പെടുന്നത് അതിൽ നിന്നു പറഞ്ഞാൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള എല്ലാ മലയാളികളും അതായത് കാസർഗോഡ് കേരളത്തിൽ മാത്രമല്ല എവിടെയൊക്കെ മലയാളികളുണ്ട് അവിടെയൊക്കെ നമ്മൾ ഓണം ആഘോഷിക്കുന്നു ഓണപ്പരിപാടികൾ നടത്തുന്നു ഓണപ്പൂക്കളമിടുന്നു മാവേലിയെ വരവേൽക്കുന്നു ഇതൊക്കെ കേ വിനോദത്തിനും വിനോദ മൂല്യത്തിനു പേരുകേട്ട ഒരു പ്രധാന സാംസ്കാരിക ഉത്സവം തന്നെയാണ് ഓണം പിന്നീട് നമുക്ക് എടുത്തു പറയേണ്ട ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മുടെ കാര്യങ്ങളിൽ എല്ലാം ഉള്ളത് ഗണേശോത്സവം അത് കേരളത്തിൽ മാത്രം നടത്തപ്പെടുന്ന ഒരു സംഭവം മാത്രമല്ല അത് കാസർഗോഡ് ജില്ലയിൽ പേരു കേട്ടതാണ് ഓരോരോ ജില്ലയിൽ വെവ്വേറെ ദിവസങ്ങളിലാണ് നടത്തപ്പെടുന്നതെങ്കിൽക്കൂടി അത് നന്നായി നട നടത്തുന്നുണ്ട് അത് കൂടാണ്ട് ശ്രീകൃഷ്ണ ജന്മാഷ്ടമി അത് കേരളത്തിൽ നന്നായി നടത്തുന്നൊരു പരിപാടിയാണ് ശോഭാ യാത്രകൾ പിഞ്ചു കുഞ്ഞുങ്ങൾ പോലും ബാലിക ബാലകന്മാരായും കൃഷ്ണ വേഷമണിഞ്ഞ് വരിവരിയായി സാംസ്കാരിക പരിപാടികളിൽ ഘോഷയാത്രയായി ഓരോരോ ഓരോരോ ബാല ഗോകുലത്തിൽ നിന്നും സംഘ

അതിൽ പേരു കേട്ടതാണ് ഗുരുവായൂർ ഗുരുവായൂർ ശ്രീ കൃഷ്ണ ഗുരുവായൂർ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലാണ് ഏറ്റവും കൂടുതൽ പരിപാടികൾ നടക്കുന്നത് ഏറ്റവും കൂടുതൽ കുട്ടികൾ കണ്ണ് ശ്രീകൃഷ്ണ വേഷങ്ങ രാധ വേഷങ്ങളും അണിഞ്ഞ് ഘോഷയാത്രയിൽ പങ്കെടുക്കുന്നത് അതിപ്പോ കാസർഗോഡ് ജില്ലയിലായാലും എല്ലാ ജില്ലയിലും കണ്ണൂറായാലും എല്ലാ ജില്ലയിലും അത് നടത്തുന്നുണ്ട് ഇതൊക്കെ വിനോദ മൂല്യത്തിന് പേരുകേട്ട സാംസ്കാരിക പരിപാടികളാണ് അതു കൂടാണ്ട് പിന്നെ പിന്നെ നമുക്ക് പ്രേത്യേകിച്ച് പറയാനുള്ളത് ഇപ്പോൾ കായിക പരിപാടികൾ എന്ന് പറഞ്ഞാൽ വള്ളം കളിയിൽ നമ്മൾ പറഞ്ഞു വള്ളം കളിയിൽ അനേകം ചെറുതായും വലുതായും ഇപ്പോൾ ഉള്ള നെഹ്റു ട്രോഫി വള്ളം കളി മാത്രമല്ല കുറേ വള്ളം കളി ഇപ്പോൾ കാസർഗോഡ് കാര്യങ്കോടായാലും കോഴിക്കോടായാലും എല്ലാ ജില്ലകളിലും വള്ളംകളി നടത്തുന്നുണ്ട് ഇത് കാണാൻ വേണ്ടി വിദേശ രാജ്യങ്ങളിൽ നിന്നും ആൾക്കാർ ഇതിന് ഇതിനു നിരീക്ഷിക്കാനായി വരുനുണ്ട് കൂടുതൽ വിദേശ വിദേശ ആൾക്കാർ ഇതിനെ ഇത് കാണാൻ വേണ്ടി മാത്രമാണ് ഈ വരുന്നത് അവർക്കൊരിത് പുതിയൊരു അനുഭ അനുഭവമാണ് പിന്നെയുള്ളത് നമ്മുടെ നമുക്കത് കാണാൻ വേണ്ടി നടത്തുന്ന കുറേ കഥകളി കഥകളി ഇപ്പോൾ വിദേശികൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നൊരു കളി കൂടിയാണ് കഥകളി കേരളത്തിൽ മാത്രം കാണപ്പെടുന്ന കഥകളി ഓട്ടംതുള്ളൽ ഭരതനാട്യം കുച്ചുപ്പുടി എന്നീ കാര്യങ്ങളും എല്ലാം കേരളത്തിന് മാത്രം അവകാശപ്പെടാവുന്ന ഒന്നാണ് പിന്നെ നമുക്ക് കേരളത്തിൽ ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്ന ചില കാര്യങ്ങളെന്ന് പറഞ്ഞാൽ മച്ചാട്ട് മാമാങ്കം മച്ചാട്ട് മാമാങ്കം എന്നാലും ഒരു കേരളത്തിന് കായിക വിനോദ മൂല്യത്തിന് പേരുകേട്ട ഒരു സാംസ്കാരിക പരിപാടി തന്നെയാണ് അതുകൂടാണ്ട് പിന്നെ ഉള്ള കേരളത്തിന് കേരളത്തിലെ അങ്ങനെ അനേകം അനേകം കുറേ കുറേ കായി പ്രധാന സാംസ്കാരിക പരിപാടികൾ കേരളത്തിൽ നട നടത്തുന്നുണ്ട് അതിൽ ഏറ്റവും പേരുകേട്ടത് ഉള്ളത് ഓണത്തിൻ്റെ ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഓണത്തിന് ഓണം പിന്നെ വിഷു വിഷു പറഞ്ഞാൽ എല്ലായിടത്തും ഉള്ള ഒരു ആ ആൾക്കാർ ആഘോഷിക്കുന്ന ഒരു പരിപാടി തന്നെയാണ് പിന്നെ പലതരം കളികളുണ്ട് കേരളത്തിന് മാത്രം ആയിട്ടുള്ള പലതരം പേരുപോലും പറയാൻ പേരുകളിൽ വ്യത്യസ്തമായ വ്യത്യസ്തമായുള്ള കോട്ടിക്കളി പോലുള്ള കുറേ കളികൾ കേരളത്തിൽ മാത്രം അനുഭവ പ്പെടുന്നുണ്ട് അതിനു അതിനു കൂടിയൊന്ന് പറയട്ടെ ഇപ്പോൾ ഓണപ്പരിപാടിയായ ഓണം ഓണപ്പരിപാടി ആയിക്കഴിഞ്ഞാൽ മാത്രം ഓണപ്പടി ഓണപ്പരിപാടിക്ക് മാത്രമല്ല എല്ലാ ദിവസവും നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ പരിപാടികൾ നടത്തിക്കഴിഞ്ഞാൽ അതു നമുക്ക് കേരളത്തിന് വിനോദ മൂല്യത്തിന് പേരു കേട്ടതായിട്ട് മാറുന്നുണ്ട് പിന്നെ പിന്നീട് ഉള്ളത് നമ്മുടെ കുട്ടിയും കോലും എന്ന് പറഞ്ഞിട്ടുള്ള കുറച്ച് കളികൾ കേരളത്തിൽ ഉണ്ട് പണ്ട് ഇപ്പോൾ അന്യംനിന്ന് പോകുന്ന ആ ഒരു കളിയാണ് കുട്ടിയും കോലും പണ്ടൊക്കെ കുട്ടികൾ കളിച്ചിരുന്ന കുട്ടിയും കോലും കോട്ടിക്കളി പിന്നെ ഓട്ടുകളി പിന്നെ ചാടുംവണ്ടി അങ്ങനെയുള്ള കുറേ കളികൾ കേരളത്തിന് മാത്രമായിട്ടുണ്ട് എന്നാലും വിനോദ മൂല്യത്തിന് പേരു കേട്ടത് ഈ പറഞ്ഞ ഓണം നെഹ്റു ട്രോഫി വള്ളംകളി മച്ചാട്ട് മാമാങ്കം അങ്ങനെയുള്ള പിന്നെ തൃശ്ശൂർ പൂരം അങ്ങനെയുള്ള പിന്നെ അങ്ങ അങ്ങനെയുള്ള കുറച്ച് കയ്യിൽ വിരലിൽ എണ്ണാവുന്നതും മാത്രമല്ല കൂടുതൽ പരിപാടികൾ കേരളത്തിൽ നടത്ത നടത്തപ്പെടുന്നുണ്ട് പിന്നെ നമുക്ക് നെഹ്റു ട്രോഫി പോലെത്തന്നെ കഴിഞ്ഞ വർഷം നടത്തുമ്പോൾ നമുക്ക് ഇവിടെ മുഖ്യ അതിഥി ആയിട്ട് വന്നിട്ടുള്ളത് നമ്മളെ കേന്ദ്ര മന്ത്രിമാരായ അമിത്ഷാ പിന്നെ നമുക്ക് സമൂഹത്തിൽ വലിയ സമൂഹത്തിൽ നിലയും വിലയുമുള്ള ആൾക്കാരവിടെ വിശിഷ്ടാതിഥിയായി വന്നിട്ടുണ്ട് അതൊക്കെ കേരളത്തിൻ്റെ വിനോദ മൂല്യത്തിന് ഒരു ചുക്കാൻ പിടിക്കുന്ന കാര്യം തന്നെയാണ് തൃശ്ശൂർ പൂരം എന്ന് പറഞ്ഞാൽ രണ്ട് ടീമുകളായി ചേർന്ന് ആനകൾ പത്ത് നൂറോളം ആനകൾ ചേർന്ന് പൂരം നടത്തുന്ന ഒരു പരിപാടിയാണ് തൃശ്ശൂർ പൂരം അങ്ങനെ അനേക അനേക അനേകം അനേകം കുറേ പരിപാടികൾ കേരളത്തിൽ നടത്തപ്പെടുന്നുണ്ട് അതൊക്കെ നമ്മുടെ വിനോദ വിനോദ മൂല്യത്തിന് പേരുകേട്ട സാംസ്കാരിക പരിപാടികൾ തന്നെയാണ്